എൻ്റെ മറക്കാനാകാത്ത ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം ബൈക്ക് അനുഭവം എന്നു വച്ചാൽ ബൈക്ക് യാത്ര എന്നു വച്ചാൽ ഞാൻ പ്രഗ്നൻ്റായിരുന്ന സമയത്ത് ബൈക്ക് യാത്ര ഒരു നീണ്ട യാത്ര ഞങ്ങൾക്ക് എത്രയും പെട്ടന്ന് ഒരു അത്യാവശ്യം പോകേണ്ടതുകൊണ്ടായിരുന്നു അപ്പം നമുക്ക് വേറെ വാഹനങ്ങളൊ ഒന്നും നമുക്ക് വേഗം നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ തന്നെയാണ് പോയത് വലിയൊരു എനിക്ക് അനുഭവം എന്നു വച്ചാൽ മറക്കാൻ പറ്റത്ത അനുഭവമാണ് കാരണം പ്രഗ്നൻ്റായ സമയത്ത് എല്ലാവർക്കും അറിയാം നമുക്ക് പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ആണുങ്ങൾക്കും എല്ലാം തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ബൈക്ക് യാത്ര എന്നുവച്ച് അത് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരേ ഇരിപ്പാണ് കൂടുതൽ പ്രത്യകിച്ച് എനിക്ക് കൂടുതൽ ദൂരം ഞാൻ ഇടുക്കിയിലാണ് അപ്പോൾ ഇടുക്കിയെന്ന് എനിക്ക് കോട്ടയം വരെ യാത്ര ചെയ്യേണ്ട അവസ്ഥ അപ്പോൾ നമുക്ക് അറിയാം കൂടുതൽ കാറിൽ തന്നെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോൾ ഒന്ന് കിടക്കുകയും ഒന്ന് ഇത്തിരി റെസ്റ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യും പക്ഷെ ബൈക്കിൽപ്പോയാൽ നമുക്ക് അവിടെ റെസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് പോയി വേഗം ചെല്ലേണ്ട ഒരു അവസ്ഥയുംകൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഒരിക്കലാണ് പക്ഷെ വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല കാരണം എന്നുവച്ചാൽ വളരെ സ്ലോവായിട്ടും പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഇതും പിന്നെ എൻ്റെ ആരോഗ്യനില നോക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻ്റ് വണ്ടി ഓടിച്ചതും അത് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ബൈക്ക് യാത്ര പോയതും പിന്നെ ഞാൻ എനിക്ക് പിന്നെ ബൈക്ക് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിയിരുന്നു ഞാൻ ബൈക്ക് ഓടിക്കും പക്ഷെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇവർ പെഗ്നൻ്റായിരിക്കുമ്പോൾ അറിയാം അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഉണ്ടായിരുന്നു കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ബൈക്കിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റിയത് പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു കുഞ്ഞാണെങ്കിൽ വയറ്റിൽ കിടക്കുന്നു കുഞ്ഞാണെങ്കിൽ നല്ലൊരു സന്തോഷം ഇതുമുള്ള ഇതിലുള്ളത് നമുക്ക് എന്താ ഒരു വേറൊരു ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിൽപ്പോയി നല്ലൊരു മഴയൊക്കെ ഇടയ്ക്കും കാലാവസ്ഥ വച്ച് നമുക്കൊരു മാറ്റൊരു ഇത്തിരിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാൽപ്പോലും നമുക്കതിലൊക്കെ തരണം ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പോയിട്ട് വന്നു പിന്നെ എനിക്കും ചെക്കപ്പിനും പോകണം അപ്പോൾ ചെക്കപ്പുംകൂടി ചേർത്താണ് അങ്ങോട്ട് ചെന്നത് അപ്പം നമുക്കുള്ള സമയങ്ങളും അവിടുത്തെ നമ്മുടെ ഡേ ടൈമും അതുമെല്ലാം വച്ച് ചെല്ലണമായിരുന്നു അപ്പോൾ അതെല്ലാം വച്ചു നോക്കുകയാണെങ്കിൽ നല്ല ഒരു അനുഭവം തന്നെയാണ് നല്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അത് ആ ബൈക്ക് യാത്ര സമയത്ത് പോവുക പിന്നെ പിന്നെ നമുക്കൊരു പ്രത്യേകിച്ച് നമുക്ക് കാഴ്ച്ചകളെല്ലാം കൂടുതൽ കണ്ട് പോവാം അങ്ങനെ ഇതുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹസ്ബൻ്റുമായിട്ട് കൂടുതൽ ചേർന്നുപോകുന്ന എല്ലാവരും പറയുന്നു കാറ് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ കൂടുതൽ നമുക്ക് കൂടുതൽ ചേർന്നുപോകുന്ന ഒരു നല്ല വാഹനം വച്ചാൽ ബൈക്കാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനം എല്ലാം ചേർന്നൊരു നമ്മുടെ ട്രിപ്പിൽ നമുക്ക് ബാധിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കാതെ ഞങ്ങൾ പ്രത്യേകിച്ച് വന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോയത് ഈ ബൈക്കിലാണ് വലിയൊരു അനുഭവം തന്ന വലിയ സന്തോഷം കൂടുതൽ ആൾക്കാരെയൊക്കെ പ്രത്യേകിച്ച് പലയിടത്തും ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ കൂടുതലൽ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു അങ്ങനെ പോവുമ്പം ബൈക്കിൽ പോവുമ്പോൾ പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ വേഗം നിർത്താനോ നമുക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് നമുക്ക് വേഗം എന്ന് ഒരു സ്ഥലം പാർക്കിങ്ങ് ഏരിയയൊക്കെ കൂടുമ്പോൾ കൂടുതൽ സ്ഥലം ബൈക്കൊക്കെ ആവുമ്പോൾ നമുക്ക് പ്രത്യകിച്ച് പറയാം കൂടുതൽ ഏരിയ ആവിശ്യമില്ല അപ്പോൾ നമ്മൾ കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ വേഗം എന്ന് വന്ന് ഇറങ്ങി വേഗം വരികയും അവിടുത്തെ കാര്യങ്ങൾ കാണണമെങ്കിൽ എല്ലാം എല്ലാം ചെയ്ത് തിരിച്ചു വരുമ്പോഴും നമുക്ക് എറ്റവും കൂടുതൽ നമുക്ക് സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത് വലിയൊരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് വരുമ്പോൾ സന്തോഷവും കൂടുതൽ സന്തോഷവും എല്ലാം നമ്മൾ ഒന്നിച്ച് ഒരു ഹാപ്പിയായിട്ട് പോയൊരു സമയമാണ് ഏറ്റവും വലിയൊരു ബൈക്കിംഗ് അനുഭവം എന്ന് വച്ചു കഴിഞ്ഞാൽ ഇതു തന്നെയാണ് ഈ അനുഭവം ആണെനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം